ക്രിസ്മസ്സ് ഓണം ക്രിസ്മസ്സെ ഒ ക്രിസ്മസ്സ് ലോകം എമ്പാടും ഉള്ള ഒരു ഒരൂ ഒരു ലോകമെമ്പാടുമുള്ള ആ ഉത്സവം ഉത്സവമല്ല ഒരു പ്രത്യേകതയുള്ളതാണ് ക്രിസ്മസ് അതുപോലെ ഓണം കേരളീയര് ഹോളി ഇന്ത്യ മുഴുവന് ഉള്ളതാണ് ഹോളി ദീപാവലി ഹോളി അതുപോലെ വിഷു കേരളത്തിലെ ഒരു പ്രധാന ഉത്സവത്തില് പെട്ട ഉത്സവമല്ല ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് വിഷൂ മേടമൊന്ന് അത് എല്ലാ വര്ഷവും മേടം ഒന്നിന് തന്നെയാണ് വിഷു അതുപോലെ ലോകമെമ്പാടുമുള്ള ജനങ്ങള് ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ് ഡിസംബര് ഇരുപത്തിയഞ്ചാം തീയതി രാത്രിയില് നമ്മള് ക്രിസ്മസാഘോഷിക്കും അതുപോലെതന്നെ പുതിയ ഒരു വര്ഷം പുതുവര്ഷം ലോകം എമ്പാടും ആഘോഷിക്കുന്നതാണ് ന്യൂ ഇയര് എന്ന് പറഞ്ഞ് പടക്കം പൊട്ടീരും എല്ലാ ജനങ്ങളും അത്യാ ആഹ്ളാദത്തോടുകൂടി പുതുവര്ഷത്തെ വരവേല്ക്കുന്നത് നമ്മള് കാണാറുണ്ട് പടക്കം പൊട്ടീര് അതുപോലെ കരോള് ഗാനങ്ങള് ആയിട്ടും ഒക്കെ ജനങ്ങള് എല്ലാ വീടുകളും സന്ദര്ശിച്ച് എല്ലാവര്ക്കും പുതുവര്ഷ ആശംസകള് നേരുന്നു ക്രിസ്മസ്സ് പുതുവത്സരാശംസകള് അത് നല്ലെ ഒരനുഭവം ആണ് എല്ലാവര്ക്കും നല്ല അഭിവൃദ്ധിയും എല്ലാ ആയുസ്സും ആരോഗ്യങ്ങളും നേര്ന്നുകൊണ്ട് ആണ് എല്ലാവരും വന്ന് നമ്മക്കഭിവാദ്യം അര്പ്പിച്ച് പോവുന്നത് അതുപോലെ ഓണം വിഷു അതും കേരളീയര്ക്ക് മലയാളത്തില് പ്രത്യേക അവര് ഏതു രാജ്യത്തായാലും അവരാ ദിവസങ്ങളില് കേരളത്തിലെ പോലെതന്നെ അവര് ഓണവും വിഷുവും ആഘോഷിക്കാറുണ്ട് അതുപോലെ നമ്മള് ഓണം ഉണ്ണുന്നത് വാഴയിലയില് ഇല് ചോറും അത്കഴിഞ്ഞ് പായസവും ഉപ്പേരിയും ഒക്കെ കൂട്ടിയാണ് ഓണസദ്യ കഴിക്കാറ് അത് കൊച്ചു കുട്ടികള്ക്കും ഓണച്ചോറ് കൊടുക്കുന്നതും അതുപോലെ ഓണം കഴിഞ്ഞ് എല്ലാവരും ആഹ്ളാദത്തോടുകൂടി കളികളിലേര്പ്പെടുന്നതും പുലികളി കടുവാകളി എന്നിവയെല്ലാം അതിന്റെയൊരു പ്രത്യേകതയാണ്